പിന്നെ ഹ്യൂൻഡായിൻ്റെ എന്തൊക്കെ കാർ ആണ് ഉള്ളത് ഓക്കെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ

ആണ് അല്ലേ എത്ര റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ആ ഓക്കെ

ആണോ ആ

ഓക്കെ ഓക്കെ ആണോ

ആ ആണല്ലേ അപ്പോൾ ഈ നമ്മൾ ലോൺ എടുക്കാൻ വര അപ്പോൾ ഏതൊക്കെ ഫിനാൻസ് ഉള്ളത്

ഓക്കെ ഓക്കെ ഓക്കെ ഏതിലാണ് അതായത് പെർസെൻ്റെജ് ഇൻട്രെസ്റ്റ് കുറവ് ഏതൊക്കെയാണ് ഏതിനൊക്കെയാണ് ഡൗൺ പേയ്മെന്റ് എത്രയാണ് ആദ്യം അടയ്ക്കേണ്ടത് അറിയുമോ ആ ഹാ ആ ഓക്കെ നാളെയാണോ ഏതൊക്കെ കളർ ആണ് ഉള്ളത്

ആ അങ്ങനെയാണോ ഓക്കെ എന്നാൽ ഞാൻ മൺഡേ വരാം